ഗതാഗതം മൂലം എന്തെല്ലാം നേരിടുന്നു എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് പറയേണ്ടത് റോഡുകൾ തന്നെയാണ് ചിലയിടങ്ങളിൽ റോഡ് കുണ്ടും കുഴിയും ഒക്കെ ആയിട്ട് തടസ്സങ്ങളുള്ള യാത്രക്കാർക്ക് തടസ്സങ്ങൾ ഉള്ളതവിടെയാണ് കുറേ അവിടെ കണ്ടി കണ്ട് വരുന്നത് അവിടെ എന്ന് പറഞ്ഞാൽ യാത്രക്കാർ കൂടുതൽ ആയത് കൊണ്ടുതന്നെ ചിലചില സമയത്ത് ആക്സിഡൻറ്റ് അങ്ങനെ പോലുള്ളതൊക്കെ സംഭവിക്കാറുണ്ട് ഇപ്പോൾ പോപുലേഷൻ വർദ്ധിച്ചതോടെ എല്ലാവരുടെ വീട്ടിലും കാറ് ബൈക്ക് എല്ലാം അവർ സ്വന്തമായി വാങ്ങി പക്ഷെ എന്നാലും ഈ ഒരു റോഡിൻ്റെ പ്രശ്നത്തിൽ കുറേ സ്ഥലങ്ങളിൽ അങ്ങനെ ആക്സിഡൻറ്റ് ഒക്കെ നടക്കാറുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ സ്ട്രീറ്റ് ലൈറ്റ് സ്ട്രീറ്റ് ലൈറ്റ് ചിലയിടങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും കാണാറില്ല ചിലയിടങ്ങളിൽ ഉണ്ട് പക്ഷെ ബൾബ് വർക്ക് ചെയ്യാത്ത ബൾബുകൾ ഒക്കെ ആയിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കൊറേ ഏരിയകളൊക്കെ ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ റിഫ്ലക്ടർ റോഡുകളിൽ റിഫ്ലക്ടർ നിർബന്ധം ആയിരുന്നു പക്ഷെ ഈ ചിലയിടങ്ങളിൽ ഒന്നും റിഫ്ലക്ടർ കാണാൻ ഇല്ല കാണുന്നില്ല റോഡുകളിൽ ഒന്നും കാണുന്നില്ല ചില അവിടെയൊക്കെ ഉണ്ട് പക്ഷെ അതിൻ്റെ ഒരു ഇതൊന്നും അവർ കാണിക്കുന്നില്ല പിന്നെ സിഗ്നൽ സിഗ്നൽ എന്ന് പറഞ്ഞാൽ ചിലയിടം ഒക്കെ നല്ല പോലെ വർക്ക് ചെയ്യുന്നുണ്ട് ചിലയിടങ്ങളിൽ ഒന്ന് രണ്ടെണ്ണം ഒക്കെയേ വർക്ക് ചെയ്യുന്നുള്ളു ചിലയവിടെ രണ്ട് മൂന്നണ്ണം ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് ഗതാഗതം മൂലം ഇന്നത്തെ ഇന്ത്യയിൽ സംഭവിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്